ഞാൻ കഴിഞ്ഞമാസം ട്രെയിനില് കോഴിക്കോട് പോയായിരുന്നു അപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാല് കോഴിക്കോട് പോയപ്പോഴത്തേക്ക് രാവിലെ പത്തേമുക്കാലിന് കൊല്ലത്ത് നിന്നായിരുന്നു ട്രെയിന് പത്തേമുക്കാലിൻ്റെ ട്രെയിൻ കറക്റ്റ് ആ ടൈമിനെത്തി എത്തി ഒരു കോട്ടയം ആലപ്പുഴ കഴിഞ്ഞപ്പോഴത്തേക്ക് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനായിരുന്നു ആലപ്പുഴ കഴിഞ്ഞപ്പോഴത്തേക്ക് സർവീസ് പണി നടക്കുകയാണെന്ന് പറഞ്ഞ് അവരവിടെ പിടിച്ചിട്ടിരുന്നു പിടിച്ചിട്ട് എന്നുവെച്ചുകഴിഞ്ഞാല് അതെനിക്കൊരു മോശമായ ഒരു അനുഭവമാണ് അന്ന് ട്രെയിനിൽ നിന്നുണ്ടായത് അങ്ങനെ അവരവിടെ പിടിച്ചിട്ടിരുന്നിട്ടിരുന്നിട്ടിരുന്നിട്ടിരുന്ന് പയ്യ പയ്യ ഒരുപാട് സമയമെടുത്തു ആൾക്കാർക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടായി ഒരുപാടുണ്ടായി വൈകുന്നേരം അഞ്ച് മണിക്ക് അഞ്ചരയാകുമ്പോള് കോഴിക്കോട് എത്തേണ്ട ട്രെയിന് രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴാണ് കോഴിക്കോട് എത്തിയത് അന്നെനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെ തന്നെ നല്ല ഇതുണ്ടായ ദിവസങ്ങളുമുണ്ട് ഇതേപോലെ ഞാൻ കോഴിക്കോട് നിന്ന് തിരിച്ചുവരുന്ന സമയത്ത് കറക്റ്റ് ടൈമിന് ട്രെയിൻ എത്തുകയും നല്ല ട്രെയിനില് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് അറിയാവുന്ന എന്നുവെച്ചാല് നമ്മള് നമുക്കൊരു ചിലരടുത്ത് നമുക്ക് ഇരിക്കാനുമെല്ലാം ഒരു മടിയായിരിക്കും നല്ല ഫ്രണ്ട്സിനെപ്പോലെ കാണുന്ന കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുകയും നല്ലതുപോലെ വരികയുമൊക്കെ ചെയ്തു ചില സമയത്ത് ട്രെയിൻ യാത്ര വളരെ ബുദ്ധിമുട്ടുകരമാണ് കൂടെ ഇരിക്കുന്നവരുടെ ഒരു ഇത് എല്ലാം ബുദ്ധിമുട്ടാണ് പക്ഷേ ചില സമയത്ത് കറക്റ്റ് ടൈമിന് ട്രെയിൻ എത്തുകയും എല്ലാം നല്ല നമുക്കൊരു മനസ്സിന് തന്നെയൊരു സമാധാനം കിട്ടും എല്ലാം കറക്റ്റ് ഒരു രീതിയിലാകുമ്പോഴത്തേക്ക്